ദൈനംദിന സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന മലയാള ഭാഷയിലെ ചില പൊതുവായ പദ പ്രയോഗങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് വാ പോകാം പിന്നെ അത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ നിന്നെ നിങ്ങളെ ഞങ്ങളുടെ വേണോ തരണോ വാ ഇഞ്ഞോട്ട് വാ നിങ്ങളുടെ ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഇതൊക്കെ പറഞ്ഞ് പഠിച്ചതാണ് അതുകൊണ്ട് എപ്പോഴും എപ്പോളും വായിൽ വരുന്നത് ഈ വാക്കുകളൊക്കെയാണ് നിന്നോട് എൻ്റെ അടുത്ത് വേണം വരണം പോകണം സംഭാഷണങ്ങൾക്കിടയിൽ വരുന്ന പദപ്രയോഗങ്ങളാണ് ഇതൊക്കെ